സാധാരണമായി പ്രാദേശിക സ്കൂളുകളിൽ പോകുന്നത് ഉന്നതതല വിദ്യാഭ്യാസങ്ങൾ നേടുവാനായിട്ടാണ് ഓരോ കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ സമൂഹത്തിലുള്ള മിക്കുള്ള കുട്ടികളും പോകുന്നത് സ്വന്തം റിസ്കിൽ സ്വന്തമായി പൈസ ചിലവാക്കി പാസ്സ്പോർട്ടും വിസയും എല്ലാമെടുത്ത് പുറം രാജ്യങ്ങളിൽ പോയി എം ബി ബി എസ്സും അതുപോലുള്ള ഉയർന്ന പദവികൾ നേടുന്നതായിട്ടാണ് കാണുന്നത് ഇതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ എബ്രോഡ് സ്റ്റഡിയിങ് ഇൻസ്റ്റിട്യൂട്ടുകളുണ്ട് അതുപോലെ തന്നെ എബ്രോഡ് ആയിട്ട് ഓരോ ഓരോന്ന് നടപ്പിലാക്കിത്തരുന്ന ബ്രോക്കർമാരുണ്ട് വളരെയധികം പൈസ കുറവിൽ ചെയ്യുന്ന കുറെ ഇൻസ്റ്റിട്യൂട്ടുകൾ നമ്മളെ ചുറ്റിനുമുണ്ട് ഇതുപോലെ എബ്രോഡ് സ്റ്റുഡികൾക്ക് മാത്രമായി പുറത്തേക്ക് സ്വന്തമായി അവർ നമ്മൾ പൈസ മാത്രം അടച്ചാൽ മതി അതിന് ഫീസ് എന്തായാലും ഈടാക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മാത്രമേ നമുക്ക് ഫ്രീയായി പഠിക്കാൻ സാധിക്കുകയുള്ളു പിന്നെ പുറം രാജ്യങ്ങളിൽ പോകുന്ന പോകുമ്പോൾ അവിടെ എന്തായാലും നമ്മുടെ രാജ്യത്ത് പ്രൈവറ്റ് പ്രൈവറ്റ് പ്രൈവറ്റ് കമ്പനികളിൽ പഠിക്കുന്നതിനെക്കാലും പൈസക്കുറച്ച് പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോ നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നമ്മൾ പഠിക്കുന്നതിനുള്ള എക്സ്പെൻസ് വളരെ കുറവുമാണ് ചീപ്പായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും എം ബി ബി എസ്സോക്കെ ചീപ്പായിട്ട് കിട്ടും അത് അതുകൊണ്ട് മാത്രമാണ് ഓരോ കുട്ടികളും പ്രാദേശികമായി പോയി പഠിക്കുന്നത് അതുപോലെ അവിടത്തെ സ്ഥലങ്ങൾ കാണാനും അവിടെ എൻജോയ് ചെയ്ത് പഠിക്കാനും പോകുന്ന കുട്ടികളും കുറെ പേരെ കാണുന്നുണ്ട് ഇതിന് പോകുന്നത് നമ്മുടെ കയ്യിൽ നിന്നും വളരെയധികം പൈസയൊന്നും ചിലവാവുകയില്ല കാരണം ഇവിടെ അടക്കുന്ന ഫീസ്സിൻറ്റെ നാലിലൊരു ഭാഗം മാത്രം അവിടെ അടച്ചാൽ മതി അതുപോലെ തന്നെ പിന്നെ നമുക്ക് വിസ അതുപോലെയുള്ള പാസ്സ്പോർട്ട് പോകാൻ പോവാനുള്ള യാത്രാ പൈസ അത് മാത്രം ചിലവഴിച്ചാൽ മതി അ ഇത് ഇതെല്ലാമൊരു എബ്രോഡ് പോകാനുള്ള ഒരു ബ്രോക്കർടെ കയ്യിലാണ് കൊടുക്കയാണെങ്കിൽ ഇതിന് നമുക്ക് അവർ എല്ലാം സെറ്റ് ചെയ്ത് അതുപോലെ ഓരോ സാധനങ്ങളും എടുത്ത് പാസ്സ്പോർട്ടും എല്ലാ വെരിഫിക്കേഷനും ചെയ്ത് നമ്മുടെ കയ്യിൽ കൊണ്ടുത്തരും അപ്പോൾ അത് അതിനായി നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ എൻട്രി ആപ്പ് അതുപോലുള്ള കുറെ ആപ്ലിക്കേഷൻസ് എബ്രോഡിന് എബ്രോഡ് പോവാനായിട്ട് ഒഫേഴ്സക്കെ ചെയ്യുന്നുണ്ട് അതുപോലുള്ള കുറെ കാര്യങ്ങളുണ്ട്